ആദ്യം തന്നെ വന്യജീവികളെ നോക്കാൻ കണ്ടിയുമൊക്ക ട്രീറ്റ് ചെയ്യണം കാരണം അവരെ അവരും നമ്മളെ പോലെ മൃഗങ്ങളിലെ ശരീരവും എന്നാ എല്ല് ഹൃദയമൊക്കെ ഉള്ള ജീവികളാണ് അവരെ കാണുമ്പോൾ പേടിച്ച് ഓടുകയും അവരെ വെടി വെക്കാൻ പോവുകയും ഇത് ചെയ്യാൻ പോകുമ്പോഴാണ് അവരും നമ്മളെ തിരിച്ച് ആക്രമിക്കാൻ വരുന്നത് തിരിച്ച് ഇങ്ങോട്ട് ആദ്യമേ ആക്രമിക്കാൻ വരുന്ന ജീവികൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും ഒരു ഭൂരിഭാഗവും നമ്മൾ ആക്രമിക്കാതെ ഒരു രീതിയുള്ള രീതിയിലും ഉള്ള മൃഗങ്ങൾ നമ്മൾ തിരിച്ച് ആക്രമിക്കേല വന്യജീവികളെ ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഈ അനാവശ്യമായി ഉള്ള വേട്ടക്കാരെയും എല്ലാവരെയും കണ്ടുപിടിച്ച് തിരഞ്ഞ് അറസ്റ്റ് ചെയ്തവരെ അത് തക്കതായ നിയമ നടപടി ഏൽപ്പിക്കുകയും ചെയ്യണം കാരണം പിന്നെ ഈ ഇത്പോലെ ഉള്ള വന്യജീവികൾ വന്യജീവികളെ വെട്ട് വെടി വെക്കുകയും കൊല്ലുകയും എന്നിട്ട് അവരുടെ ഇറച്ചിയും മാംസവും ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യുന്നത് ഇവരെ പോലെയുള്ള നാൽക്കാലികളെ നമ്മൾ ആദ്യമേ ആദ്യമേ ഇല്ലാതാക്കണം എന്നാലേ വന്യജീവി ഇവിടെ അതാണ് ഒരു മെയ്നായിട്ടും വന്യജീവികളെ സംരക്ഷിക്കാൻ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ നടപടി രണ്ടാമത് ഇത് അവർ കാരണം അത് ഒരു രീതീനുള്ള അനുവാദമില്ലാതെ ഒരു വന്യ പ്രദേശങ്ങൾ അത് അങ്ങനെ വന പ്രദേശങ്ങൾ പോകുന്നത് ഒഴിവാക്കണം കാരണം കാരണം ആ അത്പോലെ പോവുകയും അപ്പോഴത്തെ നമ്മൾക്ക് നമ്മളെ എന്നാൽ അത് അല്ല അപ്പോഴും നമ്മളെ അത് നമ്മൾ സ്വയ രക്ഷക്കായി ചെയ്യുന്ന പലതും അവർക്ക് ആക്രമമായി തീരുകയും അത് അവർക്ക് ഇതായി തീരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കാരണം പക്ഷേ അത് നമ്മൾ എല്ലാ അത് അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ എല്ലാം കഴിയുന്നതും ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ വന്യജീവികൾ വന്യസംരക്ഷണത്തിന് നമ്മൾ മെയ്നായിട്ടും മരങ്ങൾ മുറിച്ച് മാറ്റുന്നതും ഇല്ലേ ഇനി ഇല്ലേ ഇൻഡസ്ട്രിയൽ കാര്യങ്ങൾക്ക് വേണ്ടി ഈ സാധനങ്ങൾ പൊള്യൂ വനവും കാര്യങ്ങളും ഓ പൊല്യൂട്ട് ഇത് നാശമാക്കുന്നതും ഒഴിവാക്കണം കാരണം വന്യജീവി വനപ്രദേശത്തെ മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ് നമ്മൾ ഓ വന്യ വന്യ ജീവികൾക്ക് ജീവിക്കാനുള്ളതാണ് വനം ആ വനം നമ്മൾ ഇല്ലാതാക്കി ഇല്ലാതാക്കി അവർ പതുക്കെ പതുക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി തുടങ്ങും പിന്നെ അത് നമുക്കും തലവേദനയാണ് അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾല്ലാ രീതിയിലുള്ള എല്ലാ വന്യജീവി സംരക്ഷണ സംരക്ഷിക്കാനും അവരെ ഇത് ചെയ്യാനും നമുക്ക് കഴിയുകയില്ല ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ കുട്ടിക്കാനത്ത് പുലി ഇറങ്ങി എന്ത്കൊണ്ടാ നമ്മൾ അവിടുത്തെ വന വനങ്ങൾ എല്ലാം വെട്ടി നശിപ്പിക്കപ്പെടുന്നു അവിടുത്തെ വലിയ വലിയ നെ ആൾക്കാർ ആൾക്കാരുടെ സ്വാധീനം മൂലം അത്കൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ച് ജീവിക്കാനും സാധിക്കുന്നില്ല അത് നമ്മൾ വനത്തെ ഒന്നും ചെയ്യാതെ അവരുടെ ആ വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്കും അത് സംരക്ഷണമാണ് അവർക്കും അതൊരു സംരക്ഷണമാണ് അവർക്ക് വനങ്ങൾ അവർക്ക് വേണ്ടത്ര സംരക്ഷണം നൽകാതെ നമുക്ക് ഒരു രീതിയിലും വന്യജീവികളെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല കാരണം നമ്മുടെ നമ്മുടെ മൃഗം നമുക്ക് ഇല്ലേ ഈ ഇനിയും തീയില്ലേ വംശനാശം സംഭവിക്കാത്ത ഈ നല്ല നല്ല നല്ല നല്ല മൃഗങ്ങൾ ഉണ്ട് ഈ മെയ്നായ്ട്ടും വംശനാശം നശിച്ച് പോയത് കാരണം വംശനാശം വരാം എന്ന് കാര്യം നമ്മുടെ നമ്മുടെ ഈ മരം മുറിച്ച് മാറ്റിയതും ഡീഫോറസ്റ്റേഷനും കാരണമാണ് വന്യ ജീവികളെ സംരക്ഷിക്കാൻ നമ്മൾ നല്ല രീതിയിൽ എഫേട്ടിടണം